സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയെ നന്നായിട്ട് ബാധിച്ചു കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിൻ്റെ കാലമാണ് അവർ അവരുടേതായ അവരുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ അവർ ഓരോ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെങ്ങനെ ഫേസ് ചെയ്തു അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മളിൽ എത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലുള്ള പരിചയം കൂടി കൊണ്ടിരിക്യ അത് നമുക്ക് മനസ്സിലാകാനാണ് ആ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ നമുക്കെങ്ങനെ ഫേസ് ചെയ്യാം ആ അല്ലെങ്കിൽ ആ അങ്ങനെ ചെയ്താൽ നമുക്കത് നന്നായിട്ട് ബെറ്ററായിട്ട് നമ്മുടെ ലൈഫിനെ ബാധിക്കും എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അത് അവരുടേതായ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അരവണ അതുപോലെ അതൊരു സാങ്കേതികയുടെ ഉപയോഗം തന്നെയാണ് ആ ഒരു ഉപയോഗം കൊണ്ട് നമുക്ക് ഗുണത്തെ ദോഷത്തേക്കാൾ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദോഷവും ഇല്ല ഇല്ലയെന്ന് പറയുന്നില്ല ദോഷം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആളുകൾ അടുക്കാൻ ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം ഞാനൊരു ചെറിയ ഞാനൊരു അഞ്ചാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടിയെ ഞാനിന്ന് പലയിടത്ത് വെച്ച് കണുകയാണ് ആ കുട്ടിയുടെ നമ്പർ കീപ്പ് ചെയ്ത് ഞാൻ ആ ഒരു ആ റിലേഷൻ ഞാൻ വീണ്ടും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു അടുക്കാൻ ശ്രമിച്ച് അടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ അടുക്കാനുള്ള ഒരു കാരണം ആണ് അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയാസ് വളരെ ഹെൽപ്പ്ഫുൾ ആണ്